കേരളത്തിലെ ഊർജ്ജോത്പാദനത്തിനും വിഭവ നടത്തിനും ഭൂമിശാസ്ത്രത്തിൻ്റെ പങ്ക് വലുത് തന്നെയാണ് അതായത് ഊർജ്ജോൽപാദനം മീൻസ് അതായത് പിന്നെ കരണ്ട് കരണ്ടൊക്കെ ഉത്പാദിപ്പിക്കുന്നതിന് കാറ്റാടിയന്ത്രം അങ്ങനെയുള്ള യന്ത്രത്തിലൂടെയൊക്കെയാണ് നമുക്ക് ഊർജ്ജമൊക്കെ ഒരുപാട് ലഭിക്കുന്നത് പിന്നെ അതുപോലെത്തന്നെ വലിയ വലിയ ഡാമുകൾ ഡാമുകൾ കൂടുതലും ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കരണ്ട് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാർത്തയിലൊക്കെ കേൾക്കാം അതായത് മഴ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ടിൻ്റെ ഉപയോഗം അതായത് നമുക്ക് പവർ ബട്ട് പവർ കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് കേൾക്കാം അതുപോലെത്തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമ്പത്തൊന്നു ശതമാനമൊക്കെ ഇടുക്കി ഡാമിൽ വെള്ളമുണ്ടായ ടൈമിൽ ഇപ്പോൾ മുപ്പത്തൊന്ന് ശതമാനമേയുള്ളൂ അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ലഭ്യതയൊക്കെ വളരെ കുറവാകാനുള്ള സാദ്ധ്യത ഉണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പെട്രോളിയം കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത് നമുക്ക് അതായത് കാറ്റാടിയന്ത്രം വെള്ളം വെള്ളം ഇല്ലാണ്ട് നമുക്ക് നമുക്ക് തന്നെ മനുഷ്യൻ തന്നെ ജീവിക്കാൻ പറ്റില്ല അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടു നമ്മൾ വൈദ്യുതി ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറയ്ക്കണം എന്നൊക്കെ ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്